മലയാളഭാഷയെന്ന് പറഞ്ഞാല് തന്നെ ഒരു രസകരമായ ഭാഷയാണ് മറ്റ് ഭാഷകളെക്കാൾ രസകരമായൊരു ഭാഷയാണ് നമുക്ക് മലയാളഭാഷയെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം മലയാളഭാഷയിലെ ഓരോ വാക്കുകളുടെയും പ്രയോഗങ്ങളൊക്കെ എടുത്തുനോക്കുകയാണെന്നുണ്ടെങ്കില്ത്തന്നെ വളരെയധികം രസകരമായിട്ടുള്ളതാണ് ഉദാഹരണത്തിന് നമ്മുടെ സ്ഥിരം നമ്മുടെ ഡെയിലി ലൈഫില് നമ്മളെന്താണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു വേഡാണ് തള്ള് എന്നുള്ളത് തള്ളുക നമ്മളെന്തിനാണ് യൂസ് ചെയ്യുക ഒന്ന് നമ്മളെന്താണ് വാതിലും കാര്യങ്ങളും തള്ളുന്നതാണ് നമുക്ക് തള്ളുകയെന്ന് പറയുന്നത് നമ്മള് വേറെയെന്ത് കാര്യത്തിന് നമ്മള് യൂസ് ചെയ്യും തള്ളെന്ന് പറഞ്ഞാല് ഒരാള് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അതുപോലെ തന്നെ നുണയാകാൻ ചാൻസുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മള് പറയുകയാണെന്നുണ്ടെങ്കില് നമ്മളെന്ത് പറയും ഓ അവന് തുടങ്ങി അവൻ്റെ തള്ളു തുടങ്ങി ഇല്ലേ നമ്മള് അങ്ങനെ പറയും അതുപോലെ തന്നെ വേറെയൊരു ഭാഷയാണ് തേപ്പ് ഒരു പ്രയോഗമാണ് തേപ്പ് എന്നള്ളത് തേപ്പെന്നുള്ളത് ഇപ്പോള് എന്താണ് ഒരുമാതിരി തേപ്പിലെ പരിപാടിയായി പോയി അതായത് ഒരുമാതിരി ഒരു നെഗറ്റീവ് മീനിങ്ങുള്ളതാണ് തേപ്പെന്നുള്ള വരും പിന്നെ അതേപോലെ തന്നെ തേപ്പ് കിട്ടിയെന്ന് പറയുമ്പോള് എന്താണ് പ്രണയത്തിനിടയില് എന്താണ് ഒരാളെന്താണ് മറ്റേയാളെ തേച്ച് ഒരാളെ ഒഴിവാക്കി പോകുമ്പോള് തേച്ച് പോയിയെന്നൊക്കെ നമ്മള് പറയും ഇല്ലേ അതുപോലെത്തന്നെ പോസ്റ്റ് ആക്കുകയെന്നൊക്കെ നമ്മള് പറയും അതായതിപ്പം ഒരാളെ കൂടുതല് സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിർത്തിപ്പിക്കുന്നതിന് നമ്മളെന്ത് പറയും തേപ്പ് അല്ല പോസ്റ്റാക്കിയെന്നൊക്കെ പറയും പിന്നെ അതേപോലെ തന്നെ അടിച്ചുപൊളി അടിക്കുകയും പൊളിക്കുകയും എന്നൊക്കെ പറഞ്ഞാലെന്താണ് ഒരു നെഗറ്റീവ് മീനിങ് പക്ഷേ അത് നമ്മള് യൂസ് ചെയ്യുന്നത് എന്തിനാണ് ഒരു പോസിറ്റീവ് മീനിങ്ങിലാണ് അല്ലേ അടിച്ചുപൊളിച്ചു തകർത്തു ഉഷറാക്കി സെറ്റാക്കി അല്ലേ നമ്മളപ്പോള് ഒരു സംഭവം നല്ലയൊരു രീതിയില് എന്താണ് ഒരു കാഴ്ചവെച്ചാല് നമ്മളെന്ത് പറയും അപ്പോള് നമ്മള് പറയും അവന് അടിച്ചുപൊളിച്ചു കേട്ടോ ഉഷാറായിയെന്നൊക്കെ പറയും അല്ലേ ഇതാണ് മലയാളഭാഷയെന്ന് പറഞ്ഞാല് അതിലെ ഓരോ പ്രയോഗങ്ങളും വളരെയധികം രസകരമായതും പക്ഷേ നേരെമറിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് പഠിക്കാൻ പറ്റിയതില് എന്താണ് ഏറ്റവും റിസ്കുള്ളൊരു ഭാഷയാണ് മലയാളഭാഷയെന്നുള്ളത് അല്ലേ എനിക്ക് രസകരമായിട്ട് തോന്നിയ വാക്കുകൾ ഇതൊക്കെ തന്നെയാണ്